ഞങ്ങളുടെ ഈ പ്രദേശത്ത് ആദ്യ കാലങ്ങളിൽ നെയ്ത് തുന്നൽ രീതി ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഇല്ല കൂടാതെ പരമ്പരാഗതമായ വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല കാരണം ഞാൻ അങ്ങനത്തെ സാധനം കണ്ടിട്ടില്ല എനിക്ക് അറിയത്തും ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞത് കേട്ടതു വച്ചാണ് പറയുന്നത് ആദ്യമായി തന്നെ ഏതാണ് നമുക്ക് ബെഡ്ഷീറ്റാണോ സാരിയാണോ ഹാൻഡ് ടവ്വലാണോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് ആവശ്യം അതിൻ്റെതായ നൂലുണ്ടാക്കും നൂലുണ്ടാക്കിയതിനു ശേഷം അതിനെ കളർ ഏത് കളറാണോ നമുക്ക് ആവശ്യം ആ കളറിൽ മുക്കിയിട്ട് അതിനെ ഉണക്കും ഉണക്കിയതിനു ശേഷം അതിനെ നമ്മൾ തറി ഉണ്ടാക്കും തറിയിൽ ആ നൂല് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഇത് അനുസരിച്ച് അതിനു ശേഷം നമ്മൾ ഹാൻഡ്ലൂം ചെയ്യും ഹാൻഡ്ലൂം ചെയ്യുമ്പോഴത്തേക്ക് നൂൽ അങ്ങനെ തറയിൽ നൂല് ഘടിപ്പിച്ചതിനു ശേഷം അതിനെ റോളാക്കും റോളാക്കിയതിനു ശേഷം നമ്മൾ അതിനെ ഹാൻഡ്ലൂം ചെയ്യും ഹാൻഡ്ലൂം ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ ആവിശ്യം ബെഡ്ഷീറ്റാണോ അല്ലെങ്കിൽ സാരി അല്ലെങ്കിൽ ഹാൻഡ് ടൗവല് അല്ലെങ്കിൽ ചെറിയ ടൗവൽ അങ്ങനത്തെ എന്തെങ്കിലും ടൗവലാണോ കൈത്തറിയുള്ള ടൗവലാണോ ആവിശ്യം അത് നമുക്ക് അത് തുണിയായിട്ട് റോളായിട്ട് വന്നുകൊണ്ടേ ഇരിക്കും അത് ഇപ്പോൾ വന്നിട്ട് മിഷൻ ലൂം ഉണ്ട് ഹാൻഡ്ലൂമും ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതിനെ ചവിട്ടി ചവിട്ടിയാണ് അത് ചെയ്യുന്നത് ഹാൻഡ്ലൂം പോലത്തത് അപ്പോൾ അങ്ങനെ ചെയ്തു വരുമ്പോഴത്തേക്കും ഇത് തുണിയായിട്ട് ഈ നൂല് നമുക്ക് ഏതാണോ നമുക്ക് ആവശ്യം ഏത് പ്രോഡക്റ്റാണോ നമുക്ക് ആവശ്യം അതിൻ്റെതായ രീതിയിൽ അത് റോളായിട്ട് വന്നു കൊണ്ടേ ഇരിക്കും അപ്പോൾ അതിനു ശേഷം നമുക്ക് എത്ര മാത്രം മീറ്റർ നീളമാണ് വീതിയാണ് ആവശ്യം അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ രീതി അനുസരിച്ച് അത് വന്നു കഴിയുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും കട്ടായതിന് ശേഷം നമ്മൾ അതിനെ എടുത്തു മാറ്റിയിട്ട് വീണ്ടും ഈ ഹാൻഡിലും അല്ലെങ്കിൽ മിഷൻ ലും സ്റ്റാട്ട് ആകും സ്റ്റാട്ടായി കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നമുക്ക് എത്ര മാത്രം എന്താണ് വേണ്ടത് ആ രീതിക്ക് അത്ര മാത്രം വീതിക്കും നീളത്തിനുമുള്ള തുണി സാരിയാണോ അങ്ങനെ ബെഡ്ഷീറ്റാണോ എന്നുവച്ചാൽ അത് നമുക്ക് കിട്ടും ഇത് ഏത് രീതി എന്താണോ നമുക്ക് ആവശ്യം ആ ആവിശ്യത്തിന് അനുസരിച്ചാണ് നമ്മൾ നൂല് തറയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബെഡ്ഷീറ്റിൻ്റെ ആണ് ബെഡ്ഷീറ്റിൻ്റെ ആണെങ്കി ബെഡ്ഷീറ്റിൻ്റേത് സാരിയുടെ ആണെങ്കിൽ സാരിയുടേത് അല്ലാതെ ഹാൻഡ് ടവ്വലിൻ്റെയാണെങ്കിൽ ഹാൻഡ് ടവ്വലിൻ്റേത് അങ്ങനെ ഓരോന്നിനും ഓരോ പ്രത്യേക തരത്തിലുള്ള നൂലാണ് ഉള്ളത് അതനുസരിച്ച് നമുക്ക് ഓരോ പ്രത്യേക രീതിക്കാകും സാരി വേണമെങ്കിൽ സാരി കിട്ടും ടവല് വേണമെങ്കിൽ ടവല് അങ്ങനെ ആ രീതിക്കുള്ള തിങ്ങ്സ് നമുക്ക് ഈ എന്താണ്

നെയ്ത് തുന്നൽ രീതിയിലൂടെ നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്